ഇപ്പോൾ പത്രങ്ങളെന്ന് പറേണന്നൊണ്ടെങ്കില് മാതൃഭൂമി മലയാള മനോരമ ചന്ദ്രിക ദ ഹിന്ദു അതാണ് പത്രങ്ങൾ എന്ന് പറയുമ്പോൾ പിന്നെ ഈ ചാനലുകളെ കുറിച്ച് പറയുക ആണെന്നുണ്ടെങ്കിൽ മലയാള മനോരമ റിപ്പോർട്ടറ് ജനം മീഡിയാ വണ്ണ് അങ്ങനെയെല്ലാം മ മാധ്യമ ചാനലുകൾ ചാനലുകളായിട്ട് പറയാം ഇപ്പോൾ ഒരു എന്താണ് പറയുക നമ്മുടെ ദൈനം ദിന ജീവിതത്തെ സ്വാധീനിക്കുന്ന മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാണ് ഒരു കണ്ണാടി ആയിട്ട് തന്നെ അതിനെ വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഇന്നത്തെ ലോകത്ത് ഭക്ഷണവും വസ്ത്രവും പോലെ മാധ്യമങ്ങളും അനിവാര്യമായിരിക്കും അനിവാര്യം ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് നമ്മളെ ചുറ്റുടുകൾ അറിയുന്നതും കേൾക്കുന്നതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെയാണ് നമുക്ക് ഒരു മാധ്യമം ഒരു മാധ്യമം ഇല്ലാതെ നമുക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളെ ചുറ്റുപാടുകൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഇപ്പോൾ ലോകത്ത് എവടെയുമുള്ള കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും എന്തിനെ കുറിച്ചോ എന്തിനെ കുറിച്ചോ എന്ത് ഇപ്പം നമക്ക് അറിയാൻ പാടില്ലാത്ത അതിനെ കുറിച്ചുള്ളതൊക്കെ നമുക്ക് മീഡിയ വഴി അറിയാൻ പറ്റും ഇനി ഡീറ്റേയിൽഡായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെകുറിച്ചും അറിയാൻ പറ്റും കാരണം ഇങ്ങനെ ഒരു മീഡിയ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം ഇന്നും കുറേ അപ്ഡേറ്റഡാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ അറിയാതിരിക്കാനും പറ്റുന്നില്ല ഇന്ന് കുറേ കോമ്പറ്റീഷൻസിൽ ആണെന്നുണ്ടെങ്കിലും എന്തിലാണെന്ന് ഉണ്ടെങ്കിലും നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയണം അറിയാതെ നമുക്ക് ഒന്നും പറ്റില്ല അപ്പം നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരു മീഡിയയിൽ ഇൻക്ലൂഡഡ് ആണ് നമ്മൾക്ക് എത്രത്തോളം നമുക്ക് അറിവുണ്ടാകുന്നു അത്രത്തോളം നമ്മൾ ഉയരങ്ങളിലേക്കെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു മീഡിയ വളരെ അധികം നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മൾ ലോക വിവരം ആയാലും എന്തൊക്കെയാണ് എന്നുണ്ടെങ്കിലും ഈ ലോകത്ത് നിന്ന് അപ്പുറം ലോകത്തുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി വരെ നമുക്ക് ഇങ്ങനത്തെ മീഡിയ സഹായിക്കുന്നുണ്ട് വളരെ അധികം സ്വാധീനിക്കുന്നുമുണ്ട് ഇങ്ങനത്തെ ഒരു പത്രങ്ങളാണെങ്കിലും ചാനലുകളാണെന്നുണ്ടെങ്കിലും നമ്മളെ ഈ ഒരു ലോകത്ത് ജീവിക്കാൻ വളരെ അധികം സ്വാധീനിക്കുന്നുണ്ട്